ആ ഷീല ചേച്ചിയാണോ അല്ല ഒരു പോളിസി എനിക്ക് പുതിയതായിട്ട് എടുക്കണമായിരുന്നല്ലോ അതെ അതെ അതെ ഇല്ല ഞാൻ ഇങ്ങോട്ട് വരാം ചേച്ചി പറഞ്ഞാൽ മതി എന്തൊക്കെ ആ ആ ആ

ആ താല്പര്യമാണ് എടുക്കാം എങ്ങനെയാണ് റേറ്റ് വിലയൊക്കെ ആ ആ ഇല്ല മോന്റെ മോനില്ല മോളുടെ പേരിലെടുത്താൽ മതി ലിന്ഡായുടെ പേരിലെടുത്താൽ മതി ആ ആ അവൾ എഴുമണി കഴിഞ്ഞേ ഉള്ളൂ ആ ഉണ്ട് ഞായറാഴ്ചയും ഉണ്ട് ആ ആ വരണം വരണം ആ വച്ചേക്കാം വച്ചേക്കാം പിന്നെ ഏ ഫോട്ടോ മാത്രം മതിയോ ആധാറും റേഷന് കാര്ഡൊന്നും വേണ്ടേ ആ വച്ചേക്കാം ചെക്ക് ഇല്ല പൈസ തരാം എത്രയാണ് എത്രയാണ് ഒരു ഫസ്റ്റ് ഫസ്റ്റ് തരണ്ടത് ആ ഹാ മൂന്ന് മാസമോ ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം അപ്പോൾ എത്ര ലക്ഷത്തിന്റെ ആണ് എത്ര ലക്ഷത്തിന്റെ ആണ് പ്രീമിയം പോളിസിയാണ് ആ ആ എന്നാൽ ഞായറാഴ്ച വരുവല്ലോ അല്ലേ ഓക്കെ ഓക്കെ ശരി ഓക് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ലിന്ഡ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഉണ്ട് ആ ആ ഞാൻ അവനെ പറയാം ഞാൻ ഫോണ് ചെയ്യുമ്പം പറയാം ആ വിളിക്കാം ഓ വിളി ശരി ശരി ആ ഓ ഓ ഓക്കെ ഓക്കെ ശരി